മുന്നേറിയതായിട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഡിഗ്രി പഠിച്ച ഭൂരിഭാഗം പേരും തൊഴിലില്ലാത്ത ഒരു സാഹചര്യം അതായത് നമ്മൾ ഇപ്പം പഠിക്കുന്ന ജസ്റ്റ് ഡിഗ്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഇന്നത്തെ നമ്മടെ ഈ കേരളത്തിൽ ലഭിക്കുന്നുള്ളൂ അതിന് അനുസരിച്ചുള്ള ഒരു തൊഴിൽ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ തന്നെ അന്വേഷിക്കേണ്ടി ഇരിക്കുന്നു ഇപ്പം ജസ്റ്റ് പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്നത് പോലെ തന്നെയാണ് ഡിഗ്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ കേരളത്തിൽ വരുന്നത് അതുകൊണ്ട് അത് വ്യത്യസ്ത അത് കൂടുതൽ പേർക്കും പഠിച്ചിറങ്ങിയ പിന്നെ വേറെ ഒരു തൊഴിൽ കണ്ടെത്തേണ്ടതിൻ്റെ ഒരു ഇത് വരുന്നത് കൊണ്ടാവാം കൂടുതൽ പേർക്കും ഡിഗ്രി കഴിഞ്ഞിട്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മൂലമൊക്കെ മറ്റു പലതരത്തിലുള്ള തൊഴിലിൽ ഏർപ്പെടേണ്ടി വരുന്നു അപ്പം അവർക്ക് കൃത്യമായിട്ടും ഒരു തൊഴിൽ അതിലൂടെ ലഭിക്കുന്നില്ല അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് പിന്നെയും പഠിക്കണം ഉയർന്ന തലത്തിലുള്ള ഒരു ജോലി വാങ്ങണം അതായത് ഈ ഗവൺമെൻ്റ് ജോലികൾ ഡിഗ്രി തലത്തിലുള്ള പല ജോലി സാധ്യതകൾ അതിനൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ് ഈ ജസ്റ്റ് ഡിഗ്രി എടുക്കുന്നു പിന്നെ ഒരു ഉന്നത രീതിയിലുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആണെങ്കിൽ വേറെ ആ ഒരു സ്വയം മുന്നേറിയോ എന്നു ചോദിച്ചാൽ ഒരു പക്ഷേ തുടർന്നു പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ഫീസുകൾ അതു തന്നെ അല്ല ഒത്തിരി മുന്നോട്ട് പഠിച്ചു കൊണ്ടിരുന്ന നമുക്ക് ജോലി കിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതു കൊണ്ടാവാം ജസ്റ്റ് ഡിഗ്രി എടുത്തിട്ട് വേറെ എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം പല ഇടങ്ങളിലും കോളേജ് കുട്ടികൾക്ക് ഇടയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഉൾപ്പെടെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് കാരണം ഡിഗ്രി പഠിക്കാൻ നേരം കൊണ്ട് വേറെ ഏതെങ്കിലും കോഴ്സിൽ ഏർപ്പെട്ടാൽ ജോലി സാധ്യതയുള്ള ഏതെങ്കിലും കോഴ്സിൽ ഏർപ്പെട്ടാൽ നമുക്ക് അതിനുള്ള തൊഴിൽ കിട്ടും എന്നുള്ള ഒരു അവബോധമാണ് ഇപ്പോൾ എല്ലാവരുടെയും ഇടയിൽ അതുകൊണ്ട് ഇപ്പം ഭൂരിഭാഗം കുട്ടികളും പ്ലസ് ടു കഴിയുന്നത് പ്ലസ് ടു കഴിയുന്നത് തന്നെ നേഴ്സിംഗ് തൊഴിൽ കിട്ടുന്ന കോഴ്സുകൾ അന്വേഷിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഡിഗ്രി ഒരു വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നേയും മുന്നേറണം നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളും അതുപോലെ അതിന് വേണ്ടിയിട്ട് മാതാപിതാക്കളും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കി അങ്ങനെയുള്ള കുട്ടികൾ ഡിഗ്രി തലത്തിലുള്ള സിവിൽ സർവീസ് പിന്നെ ഗവൺമെൻ്റ് ജോലി അങ്ങനെയൊക്കെ നേടുന്നവരുണ്ട് പിന്നെ ആണെങ്കിൽ ബികോമ് അങ്ങനെയൊള്ള ഡിഗ്രികളൊക്കെ എടുക്കുന്നവർ എംകോം ചെയ്യുന്നു ബാങ്കിൽ ബാങ്ക് കോച്ചിങ് അങ്ങനെയുള്ള അതിലൊക്കെ ഏർപ്പെടുന്നു ബി ബി എ അത് എം ബി എ അങ്ങനെയൊക്കെ ഉള്ളത്

ടീച്ചിംഗ് ഫീൽഡിലേക്കാണ് പോകുന്നത് ആർട്സായിട്ടുള്ള ഡിഗ്രികളൊക്കെ

ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് പ്ലസ് ടു കഴിയുന്നത് ഇപ്പോൾ ആളുകൾ തൊഴിൽ അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഇതിലേക്ക് തന്നെ മാറുക അതേ സമയം പുറത്തേകൊക്കെ പഠിച്ചാൽ നമുക്ക് ഡിഗ്രി കഴിയുന്നതെ ഉടനെ ജോലിയാണ് ആ ഒരു സംവിധാനം നമ്മടെ കേരളത്തിൽ ഇപ്പോൾ ലഭ്യമല്ലാത്തത് കൊണ്ട് ആരും അതിനെ അതിൽ നിന്നും മുന്നേറാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്തെങ്കിലും വേറെ ഏതേലും കോഴ്സ് ചെയ്തു എങ്ങനെ എങ്കിലും ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ടൊള്ള ഒരു ശ്രമമാണ് എല്ലാവരുടെ ഇടയിലും കാണാനായിട്ട് സാധിക്കുന്നത്